സ്കൂളിൽ ഞാൻ മിക്കതും എന്തായാലും നിർബന്ധമായിട്ട് ചിത്രരചന പഠിപ്പിക്കുന്നില്ല അപ്പോൾ ഞാൻ മിക്കതും ചേരുന്നത് ഡാൻസ് പഠിക്കാനും അതേപോലെ തന്നെ പാട്ട് പഠിക്കാനും ഒക്കെ ആയിരുന്നു മിക്കതും ചേർന്നിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കീട്ടുണ്ടായിരുന്നത് എനിക്ക് ചിത്രം രചിക്കാനുള്ള ഒരു കഴിവ് ദൈവം തന്നിട്ടില്ലാന്നാണ് പക്ഷെ ഒരു സമയം എത്തുമ്പോൾ ക്രാഫ്റ്റ് എന്ന പേരിൽ രണ്ട് പിരീഡുകൾ സ്കൂളിൽ ഒരു അഞ്ച് തൊട്ട് ഏഴാം ക്ലാസ് വരെ എട്ടാം ക്ലാസ് വരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നിർബന്ധമായിട്ടും അവർ ഇങ്ങനത്തെ ഇത്തരം ഇതുകളിൽ ഏർപ്പെടുത്താനായിട്ട് ടീച്ചർമാർ നിർബന്ധം വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഫിസിക്കൽ ട്രെയിനിങ്ങെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിരീഡ് പോലെ നിർബന്ധമായിട്ടും ക്രാഫ്റ്റെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിരീഡ് വെച്ചു തുടങ്ങീട്ടുണ്ടായപ്പം അപ്പോൾ ആ പിരീഡ് മിക്കതും ചിത്രം രചനയും ഉണ്ടാവും അത് മാത്രമല്ല വേറെ പല തരം ക്രാഫ്റ്റുകളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതിൽ ടീച്ചർമാരാദ്യം തന്നെ പറയും ഇത് എല്ലാവർക്കും ചിത്രം രചിക്കാനുള്ള കഴിവ് ഇല്ല പക്ഷെ ഉള്ള ആൾക്കാർ ട്രൈ ചെയ്യൂ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾ അല്ല ഉള്ള ആൾക്കാർ നന്നായി വരക്കൂ കഴിവില്ലാന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യൂ എന്ത് വരച്ചാലും അതൊരു ചിത്രമാണല്ലോ ഇങ്ങനെ അപ്പോൾ അവരങ്ങനെ ഓരോ പിരീഡുകൾ നമുക്ക് ഇങ്ങനെ ഓരോ പടങ്ങൾ നമുക്ക് കൊണ്ട് തരും എന്നിട്ട് ചിലപ്പോൾ റിയൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് കൊണ്ട് ഫ് വെച്ചിട്ട് അതിനെ വരക്കാനായിട്ടായിരിക്കും ചിലപ്പോൾ പറയുന്നത് അപ്പോൾ അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ നമുക്കൊരു ചിത്രം തന്നിട്ട് അതങ്ങനന്നെ പകർത്തി വരക്കാനായിട്ടായിരിക്കും പറയുന്നത് അപ്പം അങ്ങനെയാണ് ചിത്രരചന പഠിപ്പിക്കുന്നത് പിന്നെ ചിത്രരചനാഭ്യാസത്തെ കുറിച്ചുള്ള അനുഭവമെന്ന് പറഞ്ഞ്കഴിഞ്ഞാൽ ഇതന്നെയാണ് ഉള്ളത് എന്താ ചിത്രം രചിക്കാനുള്ള കഴിവ് എനിക്ക് ശരിക്കും ഇല്ല പക്ഷെ ശരിക്കും പറയാണെങ്കിൽ ഒരു ചിത്രം തന്നിട്ട് അത് നോക്കി വരക്കാനായിട്ട് പറയുമ്പോൾ ഏകദേശം ആ ചിത്രം പോലെ ഒക്കെ വരാറുണ്ട് പക്ഷെ ഒരു റിയലായിട്ടൊരു ഒബ്ജക്റ്റ് ആണ് ഫ്രണ്ടില് വെച്ചേക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ചിത്രം രചിക്കാൻ പറഞ്ഞ് കഴിഞ്ഞഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യാ ഒരിക്കലും അതിൻ്റടുത്ത് എത്താറില്ല പടം അപ്പോൾ അങ്ങനെയാണ് പക്ഷെ എൻ്റെ കൂടെ പടം വരക്കുന്ന കുറെ അധികം വിദ്യാർത്ഥികൾ എൻ്റെ സഹപാഠികളുണ്ട് അവരൊക്കെ വരക്കുന്ന കാണുമ്പോൾ ശരിക്കും പറഞ്ഞഴിഞ്ഞാൽ എനിക്ക് നല്ല കൊതിയാവാറുണ്ട് കാരണം അവർ അവർക്ക് ചിത്രം രചിക്കാനുള്ള കഴിവുണ്ട് അവർ എന്താണോ പടം അതേപോലെ തന്നെ അവർ വരച്ച് വെയ്ക്കണ കാണുമ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ ഇങ്ങനെയാണെൻ്റെ സ്കൂളിലെ ചിത്രരചനയെ കുറിച്ച് ഉള്ളത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നിർബന്ധമായിട്ടുള്ള ക്രാഫ്റ്റ് പിരീഡുകൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ആകെ സ്കൂളിൽ അഞ്ചാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയാണ് ഇങ്ങനത്തെ ഒരു പിരീഡ് ഉള്ളത് അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് അവൻ അവരവർക്ക് എന്താണ് കഴിവുള്ളത് അങ്ങനത്തെ മേഖലയിലേക്ക് പോവാനായിരുന്നു ടീച്ചർമാർ നമ്മളെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നത്